എൻ്റെ ഉപരിപഠനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മൃഗസംരക്ഷണവും അവയുടെ വളർത്തൽ അതിനെയൊക്കെ പറ്റിയിട്ട് കുറേ പഠിക്കാനുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് സമീകൃതമായൊരു വ്യവസായം അതിനെ പറ്റിയാണ് അതായതിപ്പം മൃഗം വളർത്തുന്നവരുണ്ട് മൃഗങ്ങൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഏതാണ് കൃഷിയിൽ നിന്നും അതിന് ഉപ ഉൽപ്പന്നമായിട്ട് വരുന്ന പുല്ല് ഇല അതുപോലെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ മൃഗങ്ങൾക്ക് കൊടുക്കുന്നു അതേസമയം മൃഗങ്ങളിൽ നിന്നും വരുന്ന ഉപ ഉൽപ്പന്ന അല്ലെങ്കിൽ അതിൽ നിന്നും വരുന്ന മാലിന്യം എന്നുപറയുന്നത് അവരുടെ വിസ് വിസർജനങ്ങളാണ് എന്നാൽ അതിന് നമ്മൾ വേറൊരു ഉൽപ്പന്നമാക്കി മാറ്റുകയാണ് കൃഷിക്ക് ഒരു വളമായി ഉപയോഗിക്കുന്നു അത്കാരണം ഒരു ജൈവകൃഷി നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ജൈവകൃഷി ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് നല്ല നല്ലൊരു ആഹാരം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതായത് കീടനാശിനികളോ അതുപോലെ മറ്റ് മരുന്നിൻ്റെ ഉപയോഗങ്ങളോ ഒന്നും വരാതെ നല്ലൊരു ആഹാരം നമുക്ക് ആളുകളിലോട്ട് എത്തിക്കുവാനായിട്ട് സാധിക്കും അത് ആൾക്കാരുടെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കും സോ ഞാൻ ഇതാണ് ഏറ്റവും കൂടുതൽ മിക മൃഗവളർത്തൽ അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തുന്നതിലൂടെ ഒരു സുസ് തിരമായൊരു കൃഷി അല്ലെങ്കിലൊരു ഭക്ഷ്യസുരക്ഷ നമുക്കിതിലൂടെ നമുക്ക് ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കും